എൻ്റെ ഒഴിവ് സമയം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ചെടി നടും വീട്ടിലെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നടും പിന്നെ അതിനെ കുറച്ചുനേരം അതിൻ്റെകൂടെ ടൈമ് കാടുപറിച്ചും പൂവിലെ കമ്പ് ഇപ്പം വെട്ടിക്കളയാനുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞും ഒക്കെ പോകും പിന്നെ പാട്ടുകേൾക്കും ഒത്തിരി പാട്ടുകേൾക്കും പിന്നെ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ മേലെയെങ്കിലും ഒരു ദിവസം വായിക്കാൻ ശ്രമിക്കും എന്തെങ്കിലും കഥകളോ അല്ലെങ്കിൽ ചെറിയ ചെറുകഥകളോ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ ശ്രമിക്കും